ആ ചേട്ടാ ഞാൻ വന്നത് ഒരു മെമ്പർഷിപ്പ് ലൈബ്രറിയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു ആ ഓക്കേ താങ്ക് യു ചേട്ടാ അത് വീട് ഇവിടെ അടുത്താണ് തൊട്ട് അപ്പുറത്താണ് അപ്പോൾ നമുക്ക് ആ ഇതില് എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കേണ്ടത് എത്ര രൂപ ആണ് ഇതിൻ്റെ ചാർജെസ് എന്താണ് അങ്ങനെ മറ്റ് ഡീറ്റെയിൽസുകൾ അറിയാൻ വേണ്ടിയിട്ട് പേര് അർജുൻ എന്നാണ് ഇപ്പോൾ ഞാൻ വർക്കിംഗ് ആണ് ടെംപററി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഓക്കേ ആ ഓക്കേ ആ ഓഹ് മന്ത്ലി ഫീസ് എത്ര വരണുണ്ടാവും നൂറ് രൂപ അല്ലേ ഓക്കേ അത് എല്ലാ മാസവും അടയ്ക്കണോ അതോ ഒരുമിച്ചിട്ട് വർഷം അവസാനം അടക്കണ ആ രീതിയ്ക്കാണോ

മാസാമാസം അടച്ചാൽ മതിയല്ലേ ഓക്കേ ഈ കോഷൻ ഡെപ്പോസിറ്റ് നമ്മള് മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിട്ടേൺ തരുമല്ലോ അല്ലേ തിരിച്ച് തരും ഈ അഞ്ഞൂറ് റുപ്പിയയുടെ കോഷൻ അടച്ചെടുക്കുന്ന ആ ഒരു സ്കീമിൽ നമുക്ക് എത്ര ബുക്ക് അവൈലബിൾ ആവും ഒരു അറ്റ് എ ടൈം എത്രയെണ്ണം എടുക്കാൻ പറ്റും അങ്ങനെ വല്ലതും ഉണ്ടോ ഓക്കേ ആ രണ്ട് ബുക്ക് അല്ലേ ഈ രണ്ട് ബുക്കുകൾ ഇത് എടുത്തിട്ട് റിട്ടേൺ ടൈം എത്രയാണ് ഒരു മാസത്തിനുള്ളിൽ അങ്ങനെ റിട്ടേൺ ടൈം എത്രയായിരിക്കും ഓക്കേ ആ ഓക്കെ പിന്നെ അത് ഇവിടെ വന്ന് പിന്നെ അത് റീഇഷ്യൂ ചെയ്യേണ്ടി വരുമോ അതോ വാട്ട്സപ്പിലൂടെ അങ്ങനെ വല്ലതും ഓഹ് ഒന്ന് റീഇഷ്യു ഓക്കെ രണ്ടും ഓക്കെ ഐ സീ ആഹ്

ഓഹ് നമുക്ക് ബുക്സ് എല്ലാ കാറ്റഗറിയിലും അവൈലബിൾ ആണോ അത് നോവൽസ് സ്റ്റഡി ബുക്ക്സ് അങ്ങനെ എല്ലാം അവൈലബിൾ ആണോ ആഹ് ഓഹ് ഓക്കേ അതേയല്ലേ

ഓക്കേ ആഹ് അതെയല്ലേ ഓക്കേ ഈ ഇത് നമ്മള് ബുക്ക് റിട്ടേൺ റിട്ടേൺ ചെയ്യാൻ ഫെയിലായിക്കഴിഞ്ഞാൽ ഫൈൻ അങ്ങനെ വല്ലതും ഒരു ദിവസത്തിന് രൂപ വെച്ച് ഫൈൻ ഉണ്ടല്ലേ ഓക്കേ ആഹ് ആഹ് ഓക്കേ നമുക്ക് അതില്

രജിസ്ട്രേഷൻ അല്ല ഞാൻ ഇപ്പം ഒന്ന് അന്വേഷിച്ചിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു

ഓക്കേ ആഹ് ഓക്കേ ഓക്കേ

ഓക്കേ ഓക്കേ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഞാൻ വരാം ഈ തിങ്കളാഴ്ചയായിട്ട് മറ്റോ വരാം ഓക്കേ ശരി താങ്ക് യു